ഹലോ ഇത് കഫേനിയ അല്ലേ ഞാൻ വിളിച്ചത് എനിക്ക് ഒരു ഒരു ഷവർമ്മ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ആണെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറയാം കോഴഞ്ചേരിയിൽ കോഴഞ്ചേരിയിലുള്ള ഈ ടൗണിൽ തന്നെ കൊണ്ടു വന്നാൽ മതി എനിക്ക് അത്യാവിശ്യമായിട്ട് വേണം പിന്നെ ഇതിൻ്റെ കൂടെ മയോണൈസ്സ് കൂടെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ ഡെലിവറി സമയം എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ജോലി കഴിഞ്ഞു വന്നിട്ട് എനിക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ ഇതിന്റെ വിലയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അറുനൂറ് രൂപ ആയിരുന്നു പക്ഷേ അതിൽ കുറവ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്തു തരാൻ അഭ്യർത്ഥിക്കുന്നു